കോഴിക്കോട് ജില്ലയിൽ സ്ത്രീകൾ മാത്രമല്ല ഈ ഒരു പ്രശ്നം നേരിട്ടു കൊണ്ടിരിക്കുന്നത് ഇത് എല്ലാം സംസ്ഥാനത്തും കേരളത്തിൽ ഒട്ടു മിക്ക ആയിട്ടുള്ള സ്ത്രീകളുടെയും അവസ്ഥ ഇതു തന്നെയാണ് അതിന് ചെറിയ പ്രായത്തിൽ തന്നെ വിവാഹം കഴിഞ്ഞ് മറ്റൊരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ആ വീട്ടിലുള്ള പീഡനങ്ങളും അമ്മായിയമ്മ ഹസ്ബൻഡിൻ്റെ അമ്മേൻ്റെ പീഡനവും ഹസ്ബൻഡിൻ്റെ പീഡനവും എല്ലാം കൊണ്ടും സ്ത്രീകൾ ഒരുപാട് അനുഭവിക്കുന്നുണ്ട് പിന്നെ ഈ വിദ്യാഭ്യാസം ഇല്ലാത്തതിൻ്റെ പേരിലോ തൊഴിൽ ഇല്ലാത്തതിൻ്റെ പേരിലും അത്യാവശ്യം ചെറിയ പ്രായത്തിൽ തന്നെ കല്യാണം കഴിച്ച് വേറെ വീട്ടിലേക്ക് വിടുന്നത് കൊണ്ട് അധികം പഠിക്കാനൊന്നും പറ്റുന്നില്ല സ്ത്രീകൾക്ക് അതുകൊണ്ട് തന്നെ തൊഴിലില്ല അവർക്ക് അതുകൊണ്ടാണ് തൊഴിൽ ഇല്ലാത്തത് ഈ സ്ത്രീധനത്തിൻ്റെ പേരിൽ തന്നെ ഹസ്ബൻഡ് കല്യാണം കഴിഞ്ഞ് അവരെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ സ്ത്രീധനത്തിൻ്റെ പേരിലും അവരെ മർദിക്കുകയും ചുട്ടുകൊല്ലുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ എല്ലാ സ്ഥലത്തും ഉള്ള സംഭവം തന്നെയാണ് അത് കോഴിക്കോട് ജില്ലയിൽ മാത്രമുള്ള പ്രശ്നമല്ല വിദ്യാഭ്യാസ ശാക്തീകരണം ലിംഗ പക്ഷപാതം ഒക്കെയാണ് സ്ത്രീകൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ലിംഗ സമത്വം എന്ന് പറഞ്ഞ സ്ത്രീ എന്ന പേരിൽ അവരെ ഒറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത് സ്ത്രീകൾക്ക് ഒന്നും ചെയ്യാൻ പഴി പറ്റില്ല എല്ലാം പുരുഷന്മാരെ കൊണ്ട് മാത്രമേ സാധിക്കൂ എന്നൊക്കെയാണ് ഇതിലൂടെ പറയുന്നത്